ആ മേഡം പറയൂ ആ ആ പറയൂ

അതെ ഓക്കേ ഇപ്പോൾ മേഡം ഏകദേശം എത്ര എമൗണ്ട് ഇണ്ടാവും ബാങ്ക് ബാലൻസ് ആയിട്ട് അതെ അല്ലേ ഓക്കേ ഇപ്പോൾ എവിടെയാണ് മേഡം ഇപ്പോൾ ടീച്ചർ ആണോ എന്താണ് വർക്ക് ചെയ്യുന്നത് അതെ അല്ലേ ഇപ്പോൾ ഇനി എത്ര കൊല്ലം ഉണ്ട് റിട്ടയർമെന്റിന് ആ രണ്ട് മൂന്ന് കൊല്ലം ഉണ്ടല്ലേ ഓക്കേ അപ്പം മേഡം ഞാൻ ആദ്യം പറയാണെങ്കിൽ മേഡം ഒരു ആർ ഡി തുടങ്ങുക ഒരു പോസ്റ്റ് ഓഫിസിൽ എവിടെ എങ്കിലും ഒരു ആർ ഡി തുടങ്ങി കഴിഞ്ഞാൽ അത് മാസം മാസം ചെറിയോരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു അയ്യായിരത്തിൻ്റയോ ആറായിരത്തിൻ്റയോ ഒരു ആർ ഡി തുടങ്ങുക ഓക്കേ അപ്പോൾ ഈ ഒരു മൂന്ന് കൊല്ലത്തേക്ക് അതായത് നമ്മൾ റിട്ടയർമെന്റ് ആവുന്ന റിട്ടയർമെന്റ് ആവുന്ന സമയത്തിന് ഉള്ളിൽ ഒക്കെയുള്ള ആ ഒരു പിരീയഡിന് എടുത്താൽ മതി അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് അതിലേക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിട്ടയർമെന്റ് ആവുന്നതിന്റെ ഒപ്പം തന്നെ ഈ ആർ ഡിയും കൂടെ നമുക്ക് റിലീസ് ആവുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് കിട്ടും പിന്നെ മേഡം ഇപ്പം ഏത് ബാങ്കിലാണ് ഇപ്പം അക്കൗണ്ട് ഉള്ളത് എസ് ബി ഐയിൽ ആണോ അതെ അല്ലേ ഇപ്പം നമുക്ക് എസ് ബി ഐയിനെകാട്ടിലും നല്ല ഒരു ഇത് വരുന്നത് കാനറയിൽ ആണ് അവിടെ കുറച്ചും കൂടെ ഇൻ്ററസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ സർവീസും നല്ലതാണ് കുറച്ചും കൂടെ ഓക്കേ അപ്പം കാനറയിലേക്ക് മറ്റേ എമൗണ്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവരേൽ കുറച്ചും കൂടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഇൻ്ററസ്റ്റ് ഉള്ള പ്ലാനും കാര്യങ്ങളും പിന്നെ മേഡം ഷെയർ മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും താൽപ്പര്യം ഉണ്ടോ മ്യൂച്വൽ ഫണ്ട് ഷെയർ മാറ്റ് ആ ഓക്കേ ആ ആ ആ ഓക്കേ ഷെയർ മാറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു കമ്പനി നല്ല നല്ല കമ്പനികൾ നോക്കിയിട്ട് അവരെ ഷെയർ ഷെയറിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി ആണ് ഓക്കേ അപ്പോൾ അതുപോലെ ഇപ്പോൾ എൽ എൻ ഡി ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ കുറേ സ്ഥാപനങ്ങളുടെ ഷെയർ ഇപ്പോൾ ലാഭത്തിൽ പോയിട്ടിണ്ട് കുറേ ലാഭത്തിൽ അത് നോക്കിയിട്ട് ലാഭത്തിലുള്ള കമ്പനികൾ നോക്കി നമ്മൾ ഷെയർ വാങ്ങണം അതായത് കുറച്ച് പൈസ കമ്മിയുള്ള സമയത്ത് നമ്മൾ ഷെയർ വാങ്ങിയിട്ട് കൂടുതൽ പൈസ ആവുന്ന സമയത്ത് വിൽക്കുക അതാണ് ഷെയർ മാറ്റ് മാർക്കറ്റിംഗിൽ മെയിൻ ആയിട്ട് കാര്യങ്ങൾ വരുന്നത് ഓക്കേ അപ്പോൾ ഷെയർ മാർക്കറ്റിംഗ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിന് ഇപ്പം നല്ല ഒരു ഇതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എൽ ഐ സി ഐ സി പോളിസി എന്തെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ അതും ഒരു നല്ല ഇതാണ് മേഡത്തിന് ഇപ്പോൾ ഐ സി പോളിസി വല്ലതും ഉണ്ടോ അതെ അല്ലേ ആ കുഴപ്പമില്ല മറ്റേ ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയികൾക്ക് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഐ സി ഉണ്ടാവുമല്ലോ ഓൾറെഡി ആ ഓക്കേ അപ്പം അത് എന്തായാലും ഉണ്ടാവും അപ്പം അതിൽ ഒരു അപ്പോൾ ഇനിയിപ്പോൾ വേറെ എൽ ഐ സി എടുക്കേണ്ട കാരണം ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് ഗവൺമെന്റിന്റെ ഓൾറെഡി അടച്ച് പോവുന്നുണ്ടാവും മേഡം മൂന്ന് കൊല്ലം ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ഓക്കേ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ലക്ഷം അങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗെറ്റഡ് എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് അനുസരിച്ച് മേഡം റിട്ടയർമെൻറ്റ് ആവുമ്പോഴേക്കും ആ ലാസ്റ്റ് മന്ത് പി എഫ് ഒക്കെ കിട്ടാറാവുമ്പോഴുണ്ടല്ലോ ആ ലാസ്റ്റ് മന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും ആ എമൗണ്ട് നമ്മൾ കുറച്ച് കൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റും ഓക്കേ ഇപ്പം ചെറിയ ചെറിയ ഇപ്പം നമ്മളിത് മാക്സിമം ഒരു ചിലവ് കുറച്ചിട്ട് കുറച്ച് കൂടുതൽ ആർ ഡിയോ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ നോക്കുക ഈ രണ്ട് മൂന്ന് കൊല്ലത്തിന് ഓക്കേ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം റിട്ടയർ ആയിട്ട് ബൾക്ക് ആയിട്ട് എമൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം ഓക്കേ അത് ഇതാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ സിറ്റിംഗിൽ അതായത് നമ്മുടെ ഫിനാൻഷ്യൽ നമ്മളൊരു അഡ്വൈസർ ആയതുകൊണ്ട് നമുക്ക് ഒരു സാലറിയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഒരു അഡ്വൈസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എമൗണ്ട് ഞാൻ അത് ഒന്നും ആയിട്ട് എടുക്കുന്നില്ല അപ്പം മേഡം അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരുകയും ചെയ്യാം അപ്പോൾ ഒരു അപ്പോൾ എനിക്ക് ഒരു പേയ്മെന്റ് തന്നാലും മതി ഓക്കേ എന്നാൽ ശരി മേഡം കാണാം